ദിവസവും വെള്ളം ആവശ്യം എന്തിനൊക്കെയാണെന്നു വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വെള്ളം വേണം അത് ചോറ് വെക്കാൻ ആണെങ്കിലും കറി വെക്കാൻ ആണെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ വെള്ളം വേണം പിന്നേന്ന് പറഞ്ഞാൽ നമ്മള് കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യുമ്പോളൊക്കെ അപ്പോൾ വെള്ളം വേണം പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങള് ടാങ്ക്ല് വെള്ളം നിറച്ച് വെക്കും കാരണം ഇവിടെ പൈപ്പിൻ്റെ സൗകര്യം കുറവായത് കൊണ്ട് തന്നെ ഇപ് ഒര് കുറച്ച് സമയത്തേക്കാണ് വെള്ളം വരുള്ളൂ ഇപ്പോൾ രാവിലെ ഒരു അഞ്ചു മണിക്ക് വന്നുവെന്ന് പറഞ്ഞാൽ ഒരു പത്തു മണി ആകുമ്പഴേക്കും നിക്കും അപ്പോൾ ആ ഒരു പൈപ്പിൽ തന്നെ മൂന്ന് വീട്ടുകാര് പിടിക്കുന്നത് കൊണ്ട് ടാങ്കിലാണ് കൂടുതല് നിക്ഷേപിച്ച് വയ്ക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങള് യൂസ് ചെയ്യുന്നത് പിന്നെ ഗാർഡൻ ഉണ്ട് വീട്ടില് അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ വീട്ടില് നായയുണ്ട് അവൾനെ കുളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഒക്കെയേ യൂസ് ചെയ്യാറുള്ളൂ